ഇന്ത്യയില് പ്രധാനമായിട്ടും ഉത്സവങ്ങളായിട്ടങ്ങനെ പറയുവാണെങ്കിൽ ഏറ്റവും വലിയൊരുത്സവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ പൂരമാണ് നമ്മള് കേരളത്തിലുള്ളവരായതു കൊണ്ടാണ് നമുക്കതിനെപ്പറ്റിയാണ് വലിയ കാര്യമായിട്ടറിയത്തുള്ളൂ തൃശ്ശൂർ പൂരോന്നൊക്കെപ്പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഉത്സവം തന്നെയാണ് അവിടേ ഒരുപാടാനകളും ചെണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെത്തന്നെയുണ്ട് അത്യാവശ്യം വലിയൊരു മൈതാനത്ത് തന്നെയാണ് അവിടെ ഉത്സവം നടക്കുന്നത് ലക്ഷക്കണക്കിനല്ല ഒരു ഇഷ്ടം പോലെ അത് ഉത്സവപ്പറമ്പ് നിറച്ചും അവിടെ ആൾക്കാരായിരിക്കും പിന്നെ അവധി കാലങ്ങളിലൊക്കെ മെയിനായിട്ട് അന്ന് തൃശ്ശൂർ ഭാഗങ്ങളിലൊന്നും അന്ന് ക്ലാസുകൾ അങ്ങനെ ഉത്സവ സമയത്ത് ഉണ്ടാവാറില്ല കാരണം അതുപോലത്തെ ജനങ്ങളൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണത് പിന്നെ വിഷു വിഷുവിനൊക്കെ എന്താ പറയുക ഇന്ത്യയിൽ മെയിനായിട്ട് ലീവ് തന്നെയാണ് കേരളത്തിലൊക്കെയെന്ന് പറയുമ്പോൾ വിഷുവെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പോൾ അന്ന് വിഷുവിന് പടക്കം പൊട്ടിക്കുക ലീവെന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ സമയത്ത് പത്ത് ദിവസം സ്ക്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കാണ് ചെയ്യുക അങ്ങനെയാണ് അവിടെയൊക്കെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് വിഷുവിന് പടക്കം പൊട്ടിക്കുക പിന്നേ മെയിനായിട്ട് സദ്യ വിഷുക്കൈനീട്ടം അങ്ങിനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്